ഹലോ ഇത് എയർ ലൈൻസ് ഓഫീസല്ലേ ആ സാറേ ഞാൻ വിളിച്ചതെ നമ്മള് എയർ ലൈൻസിൻ്റെ നമ്പർ നമുക്ക് കഴിഞ്ഞൂസം പോകുന്നാ ഫ്ളാറ്റിൻ്റെ നമ്പര് ഞങ്ങക്ക് കുടുംബം എൻറ്റൊരു സുഹൃത്തും ഞാനുവാണേ പോകുന്നെ അപ്പാ ഞങ്ങക്ക് രണ്ട് രീതീലുള്ള നമ്പരാ കിട്ടിയേക്കുന്നെ ഞങ്ങക്ക് രണ്ട് സ്ഥലത്തും ഒരേപോലെ എറങ്ങണ്ടേ അപ്പൊ അടുത്തടുത്തിരുന്ന് പോവുവാണെങ്കി ഞങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കാന് ഒരു സൗകര്യം ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ പുള്ളി പറഞ്ഞുതരുവാനും പുള്ളിക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ കൂടി കൊറച്ച് സംസാരിക്കാൻ കൊറച്ച് കാര്യങ്ങളൊക്കെ പറയാനൊക്കെയിണ്ടാര്ന്നെ അപ്പൊ അതൊന്ന് ഒന്നിച്ചിരുന്നു ചെല തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പൊ സാറെ നമ്മള് ആ ഫ്ലൈറ്റ് നമ്പര് ആവും രണ്ട് അഞ്ചാമത്തെ എനിക്ക് കിട്ടിയേക്കുന്നതും അവന് സുഹൃത്തിന് കിട്ടിയേക്കുന്നത് രണ്ട് പതിനേഴാമത്തെ നമ്പരിലാണ് അപ്പൊ ഒന്ന് ഒന്ന് ചേയ്ഞ്ചെയ്ത് കിട്ടിയിരുന്നെ ഞങ്ങക്ക് ഉപകാരായിരുന്നു കൊറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും തിരുമാനങ്ങളെടുക്കാനോക്കെ അപ്പം കൂടുതല് കാര്യങ്ങളൊക്കെ സംസാരിക്കാതെ വലയ പ്രയോജനപ്പെടുന്ന രീതീലായിരുന്നു സാറെ അത് വെറൊന്നും കൊണ്ടല്ല ഞങ്ങളൊരു ബിസിനസ്സിൻ്റെ ചെറിയൊരു ആവശ്യം കൂടെ ഉണ്ടേതികൂടെ അപ്പം അപ്പവിടം വരെയൊക്കെ ഇച്ചിരി ദൂരൂണ്ടല്ലോ അപ്പൊ അതിനെ സംബന്ധിച്ച് ഡീറ്റെയിലായിട്ട് കാര്യങ്ങള് ചർച്ച ചെയ്യാനും മറ്റുമായിട്ടായിരുന്നു സാറേ സാ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നെങ്കി ഒന്ന് ഓക്കെ ആ ഓക്കെ സാറേ ആ ആ ആ കൊഴപ്പോല്ല അങ്ങനെ ചെയ്താമതി ആ ആ ആയിക്കോട്ടെ ഓക്കെ സാറേ ആ വരാ കൊഴപ്പൊന്നുല്ല സാറോ അതിൻറ്റാത്ത് ഒന്നിച്ച് പോകുവാണെങ്കിലും കൂടെ സംസാരിക്കാനും കൂടെ പ്രോജക്റ്റുകളൊക്കെ തയ്യറാക്കാനൊക്കെ സാധിക്കുവായിരുന്നു അപ്പതുകൊണ്ടാണ് നാളെ തന്നെ അത് കംപ്ളേ ഞങ്ങക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വേറൊരു ഇതുപോലെതന്നെ മീറ്റിങ്ങുണ്ട് കൊണ്ട് വേറെ സ്ഥലത്ത് വെച്ച് അപ്പതിന് ഞങ്ങക്കൊരുമിച്ച് പോകാനും ചെല കാര്യങ്ങള് തീരുമാനിക്കുന്നതിനൊക്കെയായിട്ടായിരുന്നു അതുകൊണ്ട് സാറേ വേറെ കൊഴപ്പം വേറെ വേറെ ഡോക്യമെൻസൊന്നും ഞങ്ങള് ഹാജരാക്കേണ്ടല്ലോ ആ ഓക്കെ സാറേ ആ ഓക്കെ ആ ആയിക്കോട്ടെ ആ ആ വേറെ വ്യത്യാസം ആ കൊഴപ്പില്ല ആ ആ ഓക്കെ ഓക്കെ താങ്ക്യൂ സാർ ഓക്കെ ഓക്കെ